ഒരു ഗായകന് അല്ലെങ്കില് ഒരു ഗായികയ്ക്ക് അത്യാവശ്യവും അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരിക്കണം ആ ഗാനാലാപനത്തിലൂടെ മറ്റുള്ളവരിലെത്തിക്കുന്ന അതിൻ്റെ മുഖഭാവങ്ങൾ ഒരു സന്തോഷകരമായ പാട്ട് പാടുമ്പോൾ ആ പാട്ട് അത് കേൾക്കുന്ന പ്രേക്ഷകരിൽ അതാസ്വദിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മനസിലാക്കാനും എന്താണ് ആ പാട്ടിൻ്റെ താളം എന്താണ് ആ പാട്ടിൻ്റെ ബോധം എന്തിനെയാണ് ഈ പാട്ട് വർണ്ണിക്കുന്നത് എന്നുള്ള വ്യക്തമായ ഒരു മുഖഭാവങ്ങളിലൂടെ അത് പ്രേക്ഷകരിൽ എത്തിക്കുമ്പോഴാണ് ആ ഗായകനോ അല്ലെങ്കി ഗായികയോ മറ്റുള്ള മനസ്സിൽ ഇടം നേടി പറ്റുന്നത് ആ പാട്ടിലൂടെ അതുകൊണ്ടുതന്നെ പാട്ടുപാടുമ്പോൾ മുഖഭാവങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഷ അത് ആ ഗാനാ ലാപന ശൈലിയെ ഒരുപാട് ഒരുപാട് മെച്ചപ്പെടുത്തുന്നതായിരിക്കും പ്രത്യേകിച്ച് ഇപ്പോള് കണ്ടുവരുന്ന ഒരു വലിയ മാറ്റം പണ്ട് ഒരാൾ പാടുമ്പോൾ ദേഹമനങ്ങാതെ അല്ലെങ്കിൽ ശരീരമനങ്ങാതെ മൈക്ക് പിടിച്ചു പാടുമ്പോൾ

കാണുന്ന പ്രേക്ഷകരിൽ പാട്ട് മാത്രമേ എത്തുന്നുള്ളായിരുന്നു അതിൻ്റെ ജീവൻ എത്തുന്നത് വളരെ കുറവായിരുന്നു എന്നാൽ ഇന്നങ്ങനല്ല ഇന്ന് പലപല റിയാലിറ്റി ഷോകളെല്ലാം പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് വീഴുന്നത് ഒരു അടിച്ചുപൊളി പാട്ട് അല്ലെങ്കിൽ ഒരു വേഗതയേറിയ പാട്ടാണെങ്കിൽ ആ പാട്ടിൻ്റെ താളം അത് നമ്മളുടെ കൈകളിലും കാലുകളിലും മുഖഭാവങ്ങളിലും വരുമ്പോഴാണ് അതിനെ കൂടുതൽ ഭംഗിയാക്കുന്നത് മനോഹരമാക്കുന്നത് പ്രത്യേകിച്ച് അത് കേൾക്കുന്ന ആൾക്കാരിലുണ്ടാക്കുന്ന ഇമ്പം അല്ലെങ്കിൽ ആ പാട്ട് സ്വാധീനിക്കുന്ന രീതി അതെല്ലാം ഇപ്പഴേ ഈയൊരു കാലഘട്ടത്തിൽ പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ശരീര ഘടന കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ മുഖഭാവങ്ങൾ കൊണ്ടും മാത്രമാണ് ഒരു വിഷാദമായ പാട്ടുപാടുമ്പോൾ ചിരിച്ചുകൊണ്ട് പാടുമ്പോൾ അതിന് എന്തർത്ഥമാണുള്ളത് അപ്പോള് ആ പാട്ടിന് എന്താണോ അർഹിക്കുന്നത് ആ രീതിയിലുള്ള മുഖഭാവങ്ങൾ ആ രീതിയിലുള്ള എക്സ്പ്രഷനുകൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള നമ്മുടെ ശരീര ഭാഷ അതിനെ തെളിയിക്കണം എങ്കിൽ തീർച്ചയായും അത് കേൾക്കുന്നവരിൽ അതിൻ്റെ ജീവൻ അതിൻ്റെ എന്താണോ ആ പാട്ടിൻ്റെ അർത്ഥം അത് ശരിക്കും മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഉൾക്കൊള്ളാനും പറ്റുന്നു ഈ ശരീരഭാഷ കൊണ്ടും അല്ലെങ്കിൽ ഇത്തരം രീതികൊണ്ടും പാടുന്ന ആൾക്കും അതുകൊണ്ട് ഏറ്റവും വളരെ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു പാട്ടിനെ പൂർത്തികരിക്കാന് കഴിയും അതായത് ഞാനും ആ പാട്ടിൽ ഒരാളാണല്ലോ ഞാനും ആ പാട്ടിൻ്റെ ജീവൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ തുടിപ്പുകളിലാണ് പോകുന്നെ എന്നുള്ള ആ ഒരു തിരിഞ്ഞുനോട്ടം അല്ലെങ്കിൽ ആ തിരിച്ചറിവാണ് അത് അതിൻ്റെ നൂറ് ശതമാനത്തിലെ വിജയത്തിലേക്കെത്തിക്കുന്നത്

ഓരോ ഗായകരും അവരുടെ ശൈലികൾ മറ്റുള്ളതില്നിന്നും വ്യത്യസ്തമായിട്ടാണ് കാണിക്കുന്നത് അത് അവരുടെ വ്യക്തിത്തെ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ഭാവങ്ങൾ അത് അവരുടെയാണെന്ന് മറ്റുള്ളവരെ കാണിക്കുമ്പോള് കിട്ടുന്ന ഒരു അനുഭൂതി അവർക്കല്ലെങ്കിൽ സന്തോഷം അത് അവരിലുണ്ട് അതിനാണ് പലരിൽ നിന്നും വ്യത്യസ്തമായിട്ട് പലരീതിയിലുള്ള ഭാവങ്ങൾ അല്ലെങ്കിൽ ശരീരഘടനകൾ അവരാ പാട്ടിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അപ്പോള് അതുകൊണ്ട് അവർക്കുണ്ടാകുന്നൊര് ഐഡൻറ്റിറ്റി ഞാൻ ഇന്ന ആൾ എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റി ആ പാട്ടിലൂടെ അവർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു അത് തികച്ചും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഒരേ ശൈലിയിലെല്ലാരും പാടുമ്പോൾ ഒരൊറ്റ രീതിയിൽ നില്ക്കുമ്പോൾ അതിനുണ്ടാവുന്നത് മാറ്റം പാട്ടിലൂടെ മാത്രം ഉണ്ടാവുകയുള്ളു ശരീരത്തിലൂടെ ഉണ്ടാവുന്നില്ല അപ്പോള് അതുമൂലം അവര് എന്താണോ പ്രേക്ഷകരില് എത്തിക്കുന്നത് അതിൻ്റെ നൂറു ശതമാനം വിജയത്തിലേക്ക് എത്തിക്കുന്നില്ല അല്ലെങ്കില് നൽകുന്നില്ല എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ സത്യമാണ് എല്ലാ ഗായകരും ഈ പറഞ്ഞപോലെ അവരുടെ മുഖഭാവങ്ങൾ കൊണ്ട് പാട്ടില് കൊടുക്കുന്ന ജീവൻ അത് ഒരാളിൽ നിന്നും മറ്റൊരാൾക്കു പര് പകർന്നുകൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആൾക്കാരിലെത്തുമ്പോൾ ഒരു പക്ഷേ ഓർമ്മകളും അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പാട്ടിലുണ്ടാകുന്നൊരു ജീവനുണ്ട് അത് തന്നെയാണ് ഒരു ഗായകൻ്റെ അല്ലെങ്കില് ഗായികയുടെ വിജയം എന്ന് പറയുന്നത് ആയതിനാൽ പാടുമ്പോൾ എത്രത്തോളം മുഖഭാവങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം ശരീരം കൊണ്ട് ആ പാട്ടിനെ സൗന്ദര്യമാക്കാൻ കഴിയുമോ അത് മറ്റുള്ളവരില് എത്തിക്കാന് കഴിയുമോ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്

പാവം അല്ലെങ്കിൽ ഒരു സാധുവായൊരു മനുഷ്യൻ നിന്നുപാടുമ്പോൾ അയാൾക്കുണ്ടാകുന്നൊരു മുഖഭാവം അല്ലെങ്കിൽ ഒരെക്സ്പ്രഷൻ ആയിരിക്കില്ല ഒരുപക്ഷേ ഒരു വേഗതയേറിയ പാട്ടോ അല്ലെങ്കിൽ ഒരു അടിച്ചുപൊളി പാട്ടോ പാടുമ്പോള് ഉണ്ടാകുന്ന മറ്റൊരാളുടെ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻ അപ്പോള് അതിലൂടെ തന്നെ പാട്ടിൻ്റെ രണ്ട് തലങ്ങൾ നമുക്ക് ആസ്വാദകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോള് അതുകൊണ്ട് പാടുമ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ന് കാലഘട്ടത്തിൽ എല്ലാവരും മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞ് ഭാവങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ അവര് കാണിക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ ഗാനലാപനത്തിലെ ശൈലിയെ കൊണ്ടും ഒരുപാട് ഒട്ടനവധി ആൾക്കാർക്ക് അത് നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു എന്നത് സത്യപരമായൊരു കാര്യമാണ്